നടുവേദന തോളുവേദന വയറ് ചാടുക എന്നുള്ള അവസ്ഥകളൊക്കെ ബൈൽക്കേ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്

ദീർഘദൂര ബൈക്ക് യാത്രകളിലും കുഴി നിറഞ്ഞ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോഴും ആണ് ബൈക്ക് യാത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നല്ല റോഡേൽ കൂടെ പോകുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഫീല് ചെയ്യത്തില്ല ബൈക്ക് യാത്രയിൽ വെയിലും മഴയും കൊള്ളേണ്ടതാണ് അടുത്ത ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേ ഉള്ളൂ മഴ വന്നാലും മഞ്ഞ് വന്നാലും വെയിൽ വന്നാലും ബൈക്കേൽ റെസ്റ്റ് എടുക്കാനോ വിശ്രമിക്കാനോ ഒന്നും കഴിയത്തില്ലല്ലോ നമ്മളെവിടെയെങ്കിലും നിർത്തി എവിടെയങ്കിലും കയറി നിന്നാൽ മാത്രമേ നമുക്ക് വിശ്രമിക്കാൻ പറ്റുള്ളൂ ഭക്ഷണം ഒന്നും ബൈക്കേൽ ഇരുന്നുകൊണ്ട് കഴിക്കാൻ പറ്റില്ല ബൈക്കേൽ ഇരുന്ന് വെയിൽ കൊള്ളാതെ യാത്ര ചെയ്യാൻ പറ്റില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും നിർത്തി വെളിയിൽനിന്ന് കഴിച്ചിട്ട് പിന്നെയും വീണ്ടും ബൈക്കേൽ കയറി തന്നെ യാത്ര ചെയ്യണം അല്ലാതെ പറ്റില്ല പിന്നെ ഇഷ്ടമുള്ള സ്പോട്ടിലൊക്കെ പോയി കഴിക്കാൻ പറ്റും ചെറിയ ഇടുങ്ങിയ റോഡിലുള്ള ഹോട്ടലിലൊക്കെ പോയി ബൈക്ക് ഉന്തിക്കൊണ്ട് പോയാൽ ബ്ലോക്കിലൊന്നും പെടാതെ പോകുന്ന പോലെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി സ്പോട്ടിലെത്താൻ സാധിക്കുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണം ഒന്നും ഇല്ല തോളുവേദന ഉണ്ടാകും ഗിയർ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ ഒരുപാട് സമയം അപ്പം തോളുവേദന നടുവേദന എന്നിവയും വയറ് ചാടലും വണ്ണം വെക്കലും ഒക്കെ വൈക്ക് യാത്ര കൊണ്ട് ഉണ്ടാവും നീർഘദൂര ബയിക്ക് യാത്രകളിൽ ആരോഗ്യം നിലനിർത്തുന്നത് ഒരുപാട് അടുപ്പിച്ച് ദൂരയാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് വല്ലപ്പോഴും ദൂരയാത്ര പിന്നെ അടുത്തൊക്കെ കറങ്ങേണ്ടി വരുന്ന ജോലിക്കാറുണ്ടല്ലോ ഓൺലൈനായിട്ട് സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ ബൈക്ക് യാത്ര കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എക്സിക്യൂട്ടീവുകൾ അങ്ങനെയുള്ള ആൾക്കാർ മീൻ കച്ചവടക്കാർ അങ്ങനെയുള്ള ചെറിയ ബിസിനസ്സ് നടത്തുന്ന ബൈക്ക് ഐസ് ക്രീം കച്ചവടക്കാരും ഓൺലൈനായിട്ട് സാധനം വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ബൈക്ക് യാത്രക്കാരും ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അല്ലാതെ ഒഴിച്ചാൽ ബൈക്ക് യാത്ര വലിയ കേമമുള്ള കാര്യമായിട്ട് ഫീല് ചെയ്യാറില്ല പിന്നെ സ്ഥിരം ഉപയോഗിച്ച് ശീലമായവർക്ക് അവർക്ക് വലിയ വിഷയമായിട്ട് തോന്നത്തില്ല എല്ലാ വേദനകളും അഡ്ജസ്റ്റ് ആയിട്ട് അവർ അതിനുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത് കൊണ്ട് അവരുടെ ബൈക്ക് യാത്രയുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവാറില്ല അല്ലാത്ത പക്ഷം ബൈക്ക് യാത്ര സ്ത്രീകൾക്കൊന്നും പറ്റുന്നതല്ല ഒരുപാട് ദൂരം പിന്നെയും കൂടുതലും ബൈക്ക് യാത്ര നടത്തുന്നത് പുരുഷന്മാരായത് കൊണ്ട് അവരെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തും ബ്ലോക്കിലൊക്കെ പെടാതെ എത്തേണ്ട അത്യാവശ്യമുള്ള ജോലിയൊക്കെയാണെങ്കിൽ അവർ ബൈക്ക് യാത്ര ഒഴിവാക്കാതെ വീണ്ടും വീണ്ടും യാത്ര ചെയ്യേണ്ടി വരുന്നു